ഞാൻ വേ ചേരുവകൾ ഉൾപ്പടെ ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് അതിൽ വന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ട് വേറൊരു ചട്ടിയെടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടി മല്ലി പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് ഗരംമസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ വന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കുറച്ച് ഒരു മണം വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ട് ഈ ഈ മിക്സ് ചെയ്തത് ഈ എല്ലാം കൂടി വെച്ച് മുളകും എല്ലാം കൂടി മിക്സ് ചെയ്തത് നമ്മൾ ഈ ചിക്കനിൽ കൊട്ടി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തു വെക്കുന്നു വെച്ചിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞത് എണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞ് ഉള്ളി ഇട്ട് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിന്റെ മേലെ പച്ചമുളകിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയിട്ട് അതൊന്ന് സെറ്റ് ആയി വരുമ്പോൾ അടുത്തു വന്നിട്ട് തക്കാളി അരിഞ്ഞിടും തക്കാളി അരിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനു ശേഷം കുറച്ചു വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു വഴറ്റി കൊടുത്തു ആ ഒരു സ്മെല്ല് വരുന്നതു വരെ അതിനെ ഒരു മൂപ്പ് അൻ ആകുന്നതുവരെ നമ്മൾ നന്നായി ഇളക്കി അതിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് മുളക്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ പുരട്ടി വെച്ച് മുളകൊക്കെ പുരട്ടി വെച്ച് നേരെ അതിലോട്ട് ഗ്രേവിയിലോട്ടു കൊട്ടുക കൊട്ടിട്ട് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ആ അതിൻ്റെ ചിക്കനിലൂടെ വരുന്ന ആ ഒരു മ് വെള്ളം ഉണ്ടാകും അതിലൂടെ അത് നമ്മൾ അങ്ങനെ തിളപ്പിക്കാൻ വെക്കുക തിളച്ചു നന്നായി തിളച്ചു വരുന്ന വന്ന് കുറച്ച് നമ്മൾ വെള്ളം കുറച്ചു മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ചു നന്നായിട്ട് ഒന്ന് സ്മെൽ വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മണം നമ്മളിൽ ആ ഒരു ആകർഷിക്കുന്നതു വരെ നന്നായി ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് നന്നായി വേകുമ്പോൾ അതിനു മേലെ കൂടി കുറച്ചു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ മേലെക്കൂടി കുറച്ചു മല്ലിയിലയും പുതിനയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്താൽ നമുക്കൊരു നല്ലൊരു വിഭവം തന്നെയാണ് കിട്ടുക അതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ചേരുവകളിൽ ഒന്ന് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു അത്